ഹലോ ആ ചേട്ടാ ഇന്നലെ ഉളിക്കലിൽ നിന്ന് ഇരിട്ടി ബസ് സ്റ്റാൻഡിലേക്ക് ചേട്ടനിന്നലെ ഒരു ഓട്ടം പോയില്ലായിരുന്നോ ആ ആ പോയ ആളാണ് വിളിക്കുന്നത് ശിബ്നി ആണ് വിളിക്കുന്നത് ആ ഞാൻ യാത്രയിലൊരു ഫോൺ അതിൽ വെച്ച മറന്നുപോയാർന്നു

ചേട്ടാ അത് അതിനകത്തില്ലേ അത് അതിനകത്തില്ലേ

ആ അതെനിക്കൊന്നു തിരിച്ചുകിട്ടാനെന്താണ് ഒരു വഴി ചേട്ടനതൊന്ന് എത്തിക്കാമോ എനിക്ക്

ആ ശരിയേട്ടാ എന്നെ ഞാൻ കയറിയ സ്ഥലത്ത് എത്തിച്ചാൽ മതിയേ ആ ഞാനവിടെ ഉണ്ടാകും ആ ശരിയേട്ടാ ശരി